നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് എന്റെ നാടെന്ന് പറഞ്ഞ ഉള് ഉള്ഗ്രാമാണ് ചുങ്കപ്പാറ പത്തനന്തിട്ട ജില്ലയിൽ ചുങ്കപ്പാറ എന്ന സ്ഥലമാണ് അവിടെയൊക്കെ പട്ടയം ഉള്ള ഭൂമി ഉണ്ട് പട്ടയം ഇല്ലാത്ത ഭൂമി ഉണ്ട് നമുക്ക് നമ്മള് ഉള് ഉള്പ്രദേശങ്ങളില് പോയി ഈ ഭൂമിക്ക് പട്ടയം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സാധാരണ അന്വേഷിക്കാറ് താലൂക്കാഫീസിലും വില്ലേജിലും പോയി ആണ് അന്വേഷിക്കാറുള്ളത് അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും വില്ലേജൊ റവന്യൂ വകുപ്പ് ആയ താലൂക്കിലും ആണ് നമ്മള് പോയി അന്വേഷിക്കാറുള്ളത് ചില ഒര് വസ്തുക്കള് വില്ക്കുമ്പോൾ അവര് പട്ടയം ഉള്ളതാണോ അല്ലയോ എന്നൊന്നും പറയാറില്ല കരവടയ്ക്കുന്നതാണോ അടയ്ക്കാത്തതാണോ ഇതിനെ ഒക്കെ സംബന്ധിച്ചുള്ള നമ്മള് സാധാരണ എടുക്കുന്നത് ഒന്ന് ഈ വില്ലേജിലോ താലൂക്ക്കളിലോ പോയാണ് ഇതിന്റെ രേഖകളെ പറ്റിയുള്ള അന്വേഷണം നമുക്ക് തര് കി അന്വേഷ്ച്ചുമ്പോള് നമുക്ക് കിട്ടുന്ന വിവരങ്ങള് പിന്നേ കര്ഷകര് കൂടുതലായിട്ടും ഈ സ്വത് ഇവിട് ഉള്ളില് ഉള്ള പ്രദേശങ്ങളിലുള്ള ഭൂമി വാങ്ങുമ്പോള് അവര്ക്കുണ്ടാവുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഇതിന്റെ രേഖകളേപ്പറ്റി ഉള്ള മുന്നാധാരം കാണത്തില്ല ചിലപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് സാധാരണ ഉണ്ടാകുന്നത് അതിന് നമ്മള് കൂടുതലാലായിട്ടും ആശ്രയിക്കുന്നത് താലൂക്കാേഫീസിലോ ഇല്ലേൽ വില്ലേജ് ഓഫീസുകളിലാണ് നമ്മള് ആസ് ആശ്രയിക്കാറുള്ളത് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുവില്ല സാധാരണ ഇവിടെ നമുക്ക് ഭൂമികളൊക്കെ കൈമാറുന്നതിന് നമുക്ക് മിക്കവാറും എല്ലാവരും ന തന്നെ നല്ല രീതി തന്നെയാണ് ചെയ്യുന്നത് ചില ആള്ക്കാര് ഇങ്ങനെ പട്ടയം ഇല്ലാത്ത ഭൂമി കൈമാറും അതിന് രേഖകൾ കാണത്തില്ല അങ്ങനെ ഉള്ള പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുന്നതു ഉണ്ട് പിന്നെ അതിര് തര്ക്കം വഴ് ഇത് ഒക്കെ ഉള്ള ഉണ്ടാവുന്നുണ്ട് അതിന് കൃത്യമായൊക്കെ രേഖകളൊക്കെ നമ്മുടെ സര്ക്കാരിന്റെ കയ്യിലുണ്ട് ഓരോ ഭൂമിയുടെയും പട്ടയ സംബന്ധമായും അതിന്റെ വിസ്തൃതിയെ പറ്റിയുള്ള എല്ലാ രേഖകളും സാധാരണ എല്ലായിടത്തും ഉണ്ട്